പ്രാദേശിക ചാനലുകൾ പലപ്പോഴും കുറേക്കൂടി വ്യക്തമായ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാദേശിക തലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് ആ പ്രദേശത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി അവിടെയുള്ള ആളുകൾ ജീവിത രീതികൾ ഒക്കെ മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പ്രാദേശിക ചാനലുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ തന്നെ കേന്ദ്ര ചാനലുകൾ പലപ്പോഴും ഈ ഈ ഒരു കാര്യത്തിൽ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് അവർ എന്നാ എന്നാ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രദേശത്തിൽ എൻ്റെ കാര്യ പ്രാദേശികമായ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാതെ പൊതുവായിട്ടുള്ള ചില നിഗമനങ്ങൾ കണ്ടെത്തുക നിഗമനങ്ങളിൽ അവരെ എത്തിച്ചേരുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ എന്നാ ഇപ്പോൾ ഇതുപോലെ ഇവിടെ ഈ പ്രദേശത്തുള്ള ഇടുക്കി വിഷന് അല്ലെങ്കിൽ മീഡിയാ നെറ്റ് ചാനലുകൾ ഒക്കെ കുറെ കൂടി ഇവിടുത്തെ ആൾ ആളുകളുടെ കൃഷി അതുപോലെ സാമൂഹ്യ പശ്ചാത്തലം മതപരമായിട്ടുള്ള കാര്യങ്ങൾ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ആ ചാനലുകളിലും അതിൽ പ്രവർത്തിക്കുന്നവർ മിഴുകി ചേർന്നു കൊണ്ട് അവർ പിന്നെ അവർ കുറേക്കൂടി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഒക്കെ അവർക്ക് സാധിക്കും എന്നാൽ ഇപ്പോൾ ഒരു പഞ്ചായത്ത് എലക്ഷൻ നടക്കുകയാണ് എങ്കിൽ ഒരു വാർഡിൽ മത്സരിക്കുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്കിൽ മത്സരിക്കുന്ന ആളെ സംബന്ധിച്ച് ഇങ്ങനുള്ള കാര്യങ്ങൾ ആ എന്നാ ആയാളുടെ ജയി ആ വ്യക്തി ജയിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിലൽ അത് സംബന്ധിച്ച് ആളുകളുടെ അഭിപ്രായങ്ങൾ ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ മനസ്സിലാക്കാൻ ഈ എന്നാ എന്നാ ഈ പ്രാദേശിക ചാനലുകൾക്ക് സാധിക്കുന്നു എന്നാൽ കേന്ദ്ര ചാനലുകൾ ഒക്കെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രാദേശികമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർ പലപ്പോഴും അവർക്ക് സാധിക്കാറില്ല അതിൽ ഉപരി ആയിട്ട് കുറെ കൂടി സത്യസന്തമായിട്ടുള്ള വാർത്തകൾ പക്ഷം പിടിക്കാതെ സത്യസന്തമായ വാർത്തകൾ കൊടുക്കുവാൻ കുറെ കൂടി പ്രാദേശിക ചാനലുകൾക്കാണ് സാധിക്കുക കാരണം അവർ എന്നാ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇഴകി ചേർന്നാൽ ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കുന്നത് കൊണ്ട് കുറേക്കൂടി സത്യസന്ധമായ വാർത്തകൾ അധികം എന്നാ എന്ന മറ്റ് അവരുടേതായ നിഗമനങ്ങളോ അല്ലെങ്കിൽ എന്നാ അവരുടേത് ആയിട്ടുള്ള താല്പര്യങ്ങളോ ഒന്നും പ്രകടിപ്പിക്കാതെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതേപടി തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പ്രാദേശിക ചാനലുകൾക്ക് സാധിക്കാറുണ്ട് പക്ഷേ ഇത് കേന്ദ്ര ചാനലുകൾക്ക് അങ്ങനെ സാധിക്കാറില്ല അവർക്ക് പലപ്പോഴും എന്നാ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറേക്കൂടി ഉയർന്ന സ്ഥലത്തിലുള്ള കാ കാര്യങ്ങൾ പാർലമെൻറ്റ് എലക്ഷന് കേന്ദ്ര മന്ത്രിസഭ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ദേശ്യവും അന്തർദേശ്യവുമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒക്കെയാണ് അവർ അധികവും സംസാരിക്കുക അതേക്കുറിച്ചുള്ള നിഗമനങ്ങളും ഒക്കെയാണ് അവർ പറയുക എന്നാൽ കുറേക്കൂടി പ്രാദേശിക തലത്തിൽ ആളുകൾക്ക് കുറെ കൂടി താല്പര്യവും ഒക്കെ ഉള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാദേശിക ചാനലുകളാണ് ഇന്ന് കാണാൻ സാധിക്കുക